ഗതാഗതമാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വാഹനമില്ലാത്തതുകൊണ്ട് അവര് ഇവിടെ വന്ന് മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഓരോ കാഴ്ചകള് കാണാനും എടുക്കാനുമൊക്കെ പോകാറ് അപ്പോൾ അവരുടെ കയ്യില്നിന്ന് അമിത ഫീസ് ഈടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതല് പൈസ ഈടാക്കുന്നതു മൂലം അവരെ പല സ്ഥലങ്ങളില് അങ്ങോട്ട് കൊണ്ടുപോവാം ഇങ്ങോട്ട് കൊണ്ടുപോവന്നൊക്കെ പറഞ്ഞ് അവരെ ഒത്തിരി പറ്റിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് അതിനൊക്കെ നേരിടാനായിട്ട് ഗവണ്മെൻറ്റ് ഏറ്റെടുത്ത് അവരെ പ്രത്യേകം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് ആവശ്യമാണ് പിന്നെ ഒരു ടൂറിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവര് എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ അവരാഗ്രഹിക്കും പക്ഷെ അവരെ കാണിച്ച സ്ഥലങ്ങള് തന്നെ പിന്നെയും പിന്നെയും കൊണ്ടുനടന്ന് കാണിച്ച് അവര് ഒരു ഇതില്ലാത്ത രീതിയിലാക്കുന്ന ഒരു പരി ഒരു പ്രവണത ഇവിടെ കാണാറുണ്ട് പിന്നെ ടൂറിസ്റ്റുകള് നമ്മളുടെ ഇവിടെയും ഒത്തിരി എത്താറുണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാര് ഇവിടെ എത്താറുണ്ട് അവർക്കൊക്കെ ഒത്തിരിയും അനുഭവങ്ങൾ അവര് പറയാറുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരമല്ല ഗതാഗതം ഒത്തിരി ബുദ്ധിമുട്ടിലാണ് എന്നുവച്ചാല് അവര് കൂട അവര് പറയുന്ന ഫീസ് പറയുന്ന ഒരു വാടകയ്ക്കായിരിക്കത്തില്ല അവര് കൊണ്ടുപോകുന്നത് പല രീതിയിൽ അവരെ കബളിപ്പിച്ച് അവര്ടേന്ന് പൈസ ഒത്തിരി മേടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതു കൂടാതെ നല്ല ആൾക്കാരും ഉണ്ട് എന്നുവച്ചാൽ അവരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല കാഴ്ചകളൊക്കെ കാണിച്ച് അവരെ ഒത്തിരി സ്ഥലങ്ങളെ കാണിച്ച് കൊണ്ടുപോയി നല്ല നല്ല പ്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം കാണിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ദേവാലയങ്ങള് പിന്നെ പിന്നെ കായലുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരുപാട് കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സ്വന്തമായിട്ടുള്ള അവർക്കുള്ള വാഹനമില്ലാത്തത് മൂലം അവർക്ക് അത് സാധിക്കുന്നില്ല അവര് ഒരുപാട് അത് മൂലം വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുന്നമട കായലുകളിലൊക്കെ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആൾക്കാര് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം പലരാൽ പറ്റിക്കപ്പെട്ട് അവര് പൈസയെല്ലാം നഷ്ടമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ ഒത്തിരിയും ആൾക്കാര് വിഷമിക്കുന്നത് നമുക്കു കാണാൻ സാധിക്കും പിന്നെ ഒത്തിരിയും ഭക്ഷണം ഭക്ഷണം അവർക്കു നല്ല രീതിയിലുള്ള ഫുഡുകൾ അവർക്കു കൊടുക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിട്ടും പക്ഷേ അവരെ ഒത്തിരിയും പൈസ അതിൻ്റെ പേരിൽ അവരുടേന്ന് ഈടാക്കി അങ്ങനെ മോശമായ ഫുഡ് കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നവരും ഉണ്ട് അങ്ങനെ ഒത്തിരിയും ഫുഡിൻ്റെ ഇത് തന്നെ പിന്നെ ഒത്തിരി ഫുഡ് ഐറ്റംസുകള് അവര് അവർക്കായിട്ട് ഓഡറ് ചെയ്ത് പക്ഷേ അതവർക്കു നൽകാതെ അത് ഒത്തിരിയും വേറെ രീതിയിലത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ അവര് പറയുന്ന ഒരു ഫുഡ് നമ്മള് ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചുകഴിഞ്ഞാൽ നല്ല ഒരു ആഹാരമാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് തൃപ്തിയുണ്ട് പക്ഷേ അവരത് കഴിച്ചു കഴിയുമ്പഴത്തേക്കും അവർക്ക് മനസിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു ഫുഡാണെന്നുള്ളതു നമുക്ക് മനസിലാക്കാൻ സാധിക്കും പിന്നെ അവര് ഒത്തിരിയും കാര്യങ്ങള് നമ്മളോടു പറയാറുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവരെ അങ്ങ് വരുന്നവരെയെല്ലാം ഒര് എന്തുവാ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ചിലര് അവരോട് പെരുമാറുന്നത് അത് ശരിയായ ഒരു രീതിയല്ല അവര് വരുമ്പഴത്തേ വിദേശികളാണ് അവര് നമ്മളെ സ്വദേശത്ത് വരുമ്പോൾ അവരെ നമ്മള് ഒത്തിരിയും കാര്യമായി പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടത് നമ്മുടെ കടമയാണ് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താമസം താമസ സൗകര്യങ്ങൾ അവർക്ക് നമ്മള് ഒരുക്കിക്കൊടുക്കണം അവര് വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിലുള്ള ആഹാരം താമസ സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ഹൗസ് ബോട്ടുകളിലൊക്കെ കറ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിനു ശേഷം അവർക്ക് പ്രത്യേകം താമസിക്കാനുള്ളൊരു സൗകര്യം നമ്മള് ഒരുക്കി കൊടുക്കേണ്ടതാണ് താമസ സൗകര്യം കൊടുക്കുമ്പോൾ അവർക്കു പറ്റുന്ന രീതിയിലുള്ള അവരുടെ ക്യാഷിന് പറ്റുന്ന രീതിയിലുള്ളൊരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഉള്ളത് കാലാവസ്ഥ കാലാവസ്ഥ മൂലം അവര് ഒത്തിരി വിഷമിക്കുന്നുണ്ട് കാലാവസ്ഥയില് അവര് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോള് ഇവിടെ കേരളത്തില് എപ്പോഴും വെള്ളവും ഇതൊക്കെയാണ് പക്ഷേ അവർക്കതാണ് കൂടുതലിഷ്ടം പക്ഷെ വെള്ളമായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പിന്നെ താമസ സൗകര്യം വെ വെള്ളത്തിലൊക്കെ പെട്ടെന്ന് ഒരുപാട് കാഴ്ചകള് കാണാൻ സാധിക്കുമല്ലോ ആ സമയം മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്കത് സാധിക്കത്തില്ല അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാതെ പോവുകയും അപ്പോള് സാധിക്കാതെ പോന്ന് തിരിച്ചു പോകുന്ന ഒരു ഇത് കാണാറുണ്ട് അതിൻ്റെ ഒരു കാര്യമുണ്ട്